ഗ്രാമീണ സമുദായത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ജനങ്ങൾലേക്കെത്തിക്കാനായിട്ട് ഗെവൺമെൻറ്റ് മുഖേന എന്തെങ്കിലും സൊസൈറ്റികൾ തുറന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ നേ നേരിട്ട് ജനങ്ങൾലേക്കെത്തിക്കുവാനും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അത് അവർക്ക് കർഷകർക്ക് നേരിട്ട് തിരികെ കിട്ടുവാനും നഷ്ടങ്ങളൊന്നും സംഭവിക്കാതെ അവർക്കത് തിരികെ കിട്ടുവാനും ഉള്ള രീതീൽ എന്തെങ്കിലും സൊസൈറ്റികൾ തുറന്നു വരുമ്പോൾ അത് ഉപ അവർക്കുപകാരമാകും അതവരുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താനും അവരുടെ കാ കാർഷികം കൂടുതൽ നന്നാക്കിയെടുക്കാനും അവർക്ക് ഉപകാരപ്പെടും